നല്ല മഴ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്ന് പറയാൻ പാടത്തിൻ്റെ സൈഡാണ് അപ്പോൾ അവിടന്ന് വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചെന്നു പറഞ്ഞാൽ കുന്നുപോലെ കുന്നിൻ്റെ താഴോട്ട് താഴോട്ടായിട്ടാണ് വീട് അപ്പോൾ ആ കുന്നിൽ നിന്ന് തന്നെ താഴോട്ട് ഒലിച്ച് വരുന്ന ഒരു രീതിയിലാണ് അപ്പോൾ അത്രയും നല്ല ശക്തയിട്ടായിരിക്കും മഴ പെയ്യുന്നതെങ്കിൽ വീട് വരെ തകരാറാവേണ്ട ഒരു സാധ്യത തന്നെയുണ്ട് ഒരിക്കൽ ഇങ്ങനെ മഴ പെയ്തിട്ട് നല്ലപോലെ മഴ ശക്തമായി വന്ന് അങ്ങനെ ഒലിച്ച് മഴ മഴ അങ്ങനെ വീടൊക്കെ പകുതിയും മുങ്ങി മുങ്ങി വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ പൊഴങ്ങി വന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് മഴക്കാലത്ത് ഞങ്ങള് കൂടുതല് ഇതിനൊക്കെയാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളത് നല്ലപോലെ ബുദ്ധിമുട്ടിട്ടുണ്ട് അവർ പിന്നെ ഞങ്ങളെ ക്യാമ്പിലൊക്കെ മാറി അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെത്തെ ഫുഡ് അങ്ങനെയൊക്കെ കഴിച്ച് മഴക്കാലം ഞങ്ങളൊരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിട്ടുള്ളത് മഴ മഴ ചിലപ്പോൾ മനുഷ്യരെ തന്നെ കൊല്ലും എന്ന് പറയുന്നത് ശരിയായൊരു പ്രയോഗം തന്നെയാണ്